നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരു ഹിന്ദു മത ആചാര പ്രകാരം നടത്തുന്ന വിവാഹം ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പെണ്ണു കാണാൻ ചെല്ലുന്നു പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വരൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ ചെല്ലുന്നു അവിടെ കാര്യങ്ങൾ അനേഷിക്കുന്നു കാര്യങ്ങൾ അനേഷിച്ചതിന് ശേഷം വധുവിൻ്റെ വീട്ടിലേക്ക് വരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചു പേർ ചെല്ലുന്നു എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു എല്ലാം തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ കല്യാണ നിശ്ചയം അതു വധുവിൻ്റെ വീട്ടിൽ വച്ചാണ് അല്ലെങ്കിൽ വധു വധുവിൻ്റെ സൗകര്യമുള്ള സ്ഥലത്തേക്ക് വച്ച് തീരുമാനിക്കുന്നു പിന്നെ കല്യാണനിശ്ചയം മോതിരം മാറൽ കല്യാണ നിശ്ചയത്തിൻ്റെ അന്ന് ചെറുക്കനും പെണ്ണും മോതിരം മാറുന്നു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു പിന്നെ കല്യാണം കല്യണത്തിൻ്റെ തലേന്ന് മൈലാഞ്ചി കല്യാണം എന്നു പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട് പെണ്ണിൻ്റെ കൈയിൽ മൈലാഞ്ചി ഇടാൻ മുതിർന്നവർ അമ്മായിമാർ ചേച്ചിമാർ ചിറ്റമാർ അതുപോലെ എല്ലാ മുതിർന്ന സ്ത്രീകൾ എല്ലാവരും കൂടി കൈയിൽ മൈലാഞ്ചി ഇടുന്നു അതൊരു ചടങ്ങാണ് പിന്നെ ഇപ്പോൾ മൈലാഞ്ചി കല്യാണം കൂടാതെ വേറെ എന്തൊക്കൊയോ ചടങ്ങുകളൊക്കെ പുതിയത് പുതിയതായിട്ട് വരുന്നുണ്ട് പിന്നെ കല്യാണം കല്യാണത്തിൻ്റെ അന്ന് ചെക്കൻ താലിമാലയും പുടവയും താലിയും ഒക്കെയായി വരുന്നു അമ്പലത്തിൽ വച്ച് അല്ലെങ്കിൽ വീട്ടിൽ വച്ച് വധുവിൻ്റെ വീട്ടുകാരുടെ ഇഷ്ടം അനുസരിച്ച് എവിടെയാണോ അവിടെ വച്ച് വിവാഹം നടത്തുന്നു പുടവ കൈമാറുന്നു പിന്നെ അതിനു ശേഷം പെണ്ണും ചെറുക്കനും കൂടി വരൻ്റെ വീട്ടിലേക്ക് പോകുന്നു വരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചില സ്ഥലങ്ങളിൽ വരൻ്റെ അമ്മയ്ക്ക് വധു വളയിട്ട് കൊടുക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാലയിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ ചടങ്ങുണ്ട് പിന്നെ കുടിക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നു അടുക്കള കാണാൻ കുറച്ച് സാധനങ്ങളുമായിട്ട് അടുക്കള കാണാൻ പോകുന്നു ഇതൊക്കെയാണ് സാധാരണ നടക്കുന്ന ചടങ്ങുകൾ